ഹലോ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് ഗുഡ് ഈവിനിംഗ് സാർ അതെയെല്ലോ നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഹൈറേഞ്ച് എന്നായിരുന്നേ ആണല്ലേ മിക്സിയാണോ മിക്സറാണോ സാർ വേണ്ടത് മിക്സറല്ലേ ആ ഓക്കെ ഓക്കെ സാർ സാർ നമ്മുടയിലിപ്പം വീ ഡി ഉണ്ട് അതുപോലെത്തന്നെ പ്രീതിയുണ്ട് സുജാതയുണ്ട് അങ്ങനെ നാലഞ്ച് ബ്രാൻഡ്കളാണ് സാർ നമുക്കുള്ളത് സാർ നമുക്ക് ഏകദേശം ആറ് ജാറും അല്ലെങ്കിൽ പല മൾട്ടിപർപ്പസ് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രൈൻഡറാണെങ്കിൽ നമുക്ക് സിക്സ് തൗസൻറ്റ് ആണ് സാർ റേറ്റ് വരുന്നത് ഓഫറുണ്ട് സിക്സ് തൗസൻറ്റാണ് നമുക്ക് റേറ്റ് വരുന്നത് സാറെ ഇത് നമുക്ക് അതിനകത്ത് ഗ്രൈൻഡിംഗുണ്ട് അതുപോലെത്തന്നെ ജ്യൂസറുണ്ട് അങ്ങനെ ചോപ്സുണ്ട് അങ്ങനെ പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സാർ പല തരത്തിലുള്ള പിന്നെ കിച്ചൺൽ മേലുപയോഗിക്കുന്നതുണ്ട് കിച്ചണ് അതുപോലെത്തന്നെ ബേക്കറി പർപ്പസ് അതുപോലെത്തന്നെ ഈ ജ്യൂസറ് ഷേക്ക് അങ്ങനെ പല പർപ്പസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാ സാർ ഉള്ളത് സുജാത നമുക്ക് വരുന്നത് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാല് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നത് നമുക്ക് എക്സ്ചേഞ്ച് ഓഫറുണ്ട് സാർ നിങ്ങളുടെ വീട്ടിലെ പഴയ മിക്സി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും അത് എടുത്തിട്ട് ബാക്കി പൈസ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് സർവീസ് അവൈലബ്ളാണ് പ്രീതിയുണ്ട് സുജാതയുണ്ട് അതുപോലെത്തന്നെ വീഡിഎമ്മുണ്ട് പുതിയ കമ്പനിയാണ് വീഡിഎം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാത്തിനും നമുക്ക് വാറൻ്റിയുണ്ട് നമുക്ക് സുജാത പ്രീതി ഇതിനൊക്കെ ഫൈവ് ഇയർ വാറൻ്റിയുണ്ട് വീഡിഎം എന്ന് പറയുന്നത് ടു ഇയറാണ് വാറൻ്റി വരുന്നത് ഫൈവ് ഇയർ സർവീസ് വാറൻ്റി അതുപോലെത്തന്നെ റീപ്ലേസ്മെൻ്റ് വാറൻ്റി അതെല്ലാം വരുന്നുണ്ട് സാർ പ്രീതിയാണ് സാർ കൂടുതലായിട്ടും വീട്ടമ്മമാർ കൊണ്ടുപോവുന്നത് പ്രീതിയാണ് പ്രീതി നമുക്കത് നമ്മൾ വീട്ടിൽ വീട്ടിൽ വന്ന് നമ്മുടെ ഇത് കസ്റ്റമേസ് സ്റ്റാഫ് വന്ന് വീട്ടിൽ വന്ന് അത് എന്നാ കംപ്ലെയ്ൻ്റ് പരിഹരിക്കും സർവീസ് ചെയ്യും സാർ

സാറെ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഹൈറേഞ്ച് നമ്മൾ അടിമാലിയിലാ നമ്മുടെ ഷോപ്പ് നമ്മൾ ഹൈറേഞ്ച് തുടങ്ങിയിട്ട് ഇപ്പം എട്ട് വർഷമായി സാർ നമുക്ക് കോബ്രാഞ്ചസുണ്ട് പല സ്ഥലങ്ങളിലും പല എല്ലാ ടൗണിലും നമുക്ക് ബ്രാഞ്ചസുണ്ട് നമുക്ക് അടിമാലിയിൽ എട്ട് വർഷമായി വർഷമായി തുടങ്ങിയിട്ട്

സാറെ നമുക്കിനി ഇപ്പം നമുക്കിനി ക്രിസ്മസ് ഓഫറാ സാർ ഉള്ളത് നമുക്ക് നമുക്ക് ഫിഫ്റ്റി പെർസെൻ്റേജ് ഒക്കെ ഓഫ് വരുന്നുണ്ട് സാർ പല ഐറ്റമിൽ ഓഫറ് വരുന്നുണ്ട് ആ അതെ അതെ എല്ലാം ന്യൂ സ്റ്റോക്കാണ് സാർ ഓൾഡ് സ്റ്റോക്കൊന്നും ഇല്ല നമ്മളിത് ന്യൂ സ്റ്റോക്കാണ് വിളിക്കുന്നത് ഓൾഡ് സ്റ്റോക്ക് നമ്മൾ എക്സ്ചേഞ്ചിന് കൊടുത്താൽ നമ്മൾ ഓഫറിലല്ലാതെ ആ കമ്പനീലേക്ക് വേറെ മറ്റ് കടകളിലേക്ക് കൊടുക്കും അങ്ങനെയാണ് സാർ കൊടുക്കുന്നത് പ്രീതിയല്ലാതെ സുജാതയുണ്ട് സുജാതയുണ്ട് വീഗാഡുണ്ട് ആണല്ലേ അങ്ങനെയുണ്ടെങ്കിൽ സുജാത നല്ലതാ സാറെ സുജാതയാണെങ്കിൽ നമുക്ക് അഞ്ച് ജാറ് വരുന്നുണ്ട് ആ അതിന്റകത്ത് മിക്സറുണ്ട് അരി പൊടിക്കാം അതുപോലെത്തന്നെ അത് എന്താണ് പല എന്നാ ഇത് വരുന്നുണ്ട് അരിപ്പകളുള്ള പല ടൈപ്പ് സാധനങ്ങളുണ്ട് ജൂസറ് അങ്ങനെ എല്ലാം ഉണ്ട് സാർ ആ ബാക്കി എല്ലാ ഐറ്റംസുണ്ട് പിന്ന അഞ്ച് വർഷ സർവീസ് വാറൻ്റിയുണ്ട് പിന്നെ സർവീസ് വീട്ടിൽ വന്ന് ചെയ്യും പിന്നതിൽ തന്നെ എക്സ്ചേഞ്ചുണ്ട് നമ്മുടെ പഴയതൊക്ക വെച്ച് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും കറണ്ട് കുറവുള്ളത് സുജാതയാണ് സാർ അത് എനർജി സേവറാണ് ഫൈവ് സ്റ്റാറാണ് സാർ നാല് മിൻറ്റ് കഴിഞ്ഞ് പതിനാറ് സെക്കൻ്റായി ഓക്കെ ഓക്കെ ഫൈന്